കാലത്തിനനുസരിച്ച് മാറുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ കേരളത്തിലിപ്പോൾ ഉള്ളത് കാരണം പണ്ടു കാലത്ത് ടി വി അതുപോലെയുള്ള മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്നു പണ്ടുകാലത്ത് അച്ചടിയൊക്കെ വരുന്നതിന് അച്ചടിയൊക്കെ വരുന്ന കാലത്തുതന്നെ ആൾക്കാരാണെങ്കിൽ ആംഗ്യഭാഷയിലൂടെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് പിന്നെയാണ് അച്ചടിയുടെ കാലം വന്നതിനുശേഷമാണ് പത്രം അതുപോലെതന്നെ പിന്നെ പുരോഗതിക്കനുസരിച്ച് റേഡിയോ കടന്നുവന്നു റേഡിയോ കടന്നുവന്നതിനെ തുടർന്ന് പിന്നെ ടി വി കടന്നുവന്നു ടി വി കടന്നുവന്നപ്പോൾ നമുക്ക് കണ്ട് ദൃശ്യങ്ങളെ കാണുവാനും അത് മനസ്സിലാക്കുവാനും നമുക്ക് ടി വി ആണെങ്കിൽ സഹായിക്കുന്നു അതിൻ്റെയൊക്കെ കഴിഞ്ഞാണ് നമുക്ക് സ്മാർട്ട് ഫോൺ അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കടന്നുവന്നതോടുകൂടി റേഡിയോയുടെയും പത്രത്തിൻ്റെയൊക്കെ ഇത് ഏകദേശമായിട്ട് അതിൻ്റെയൊക്കെ ഒരു നില കുറച്ച് താഴ്ന്നു വരികയും ഇൻ്റർനെറ്റ് ഇപ്പോൾ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ സാഹചര്യത്തിലാണെങ്കിൽ നമ്മുടെ പത്രം ആണെങ്കിൽ ഇപ്പോൾ അതു വായിക്കുന്ന ചിലവർ കാണത്തുള്ളൂ റേഡിയോയും കേൾക്കുന്നതിപ്പം ഇച്ചിരെ പ്രായമുള്ളവരാണ് മാത്രമാണ് റേഡിയോ കേൾക്കാറുള്ളു പക്ഷേ ടി വി ആണെങ്കിൽ ടി വിയെന്നു പറയുമ്പോൾ ഒരു കുടുംബപ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചിരുന്ന് കാണാൻ പറ്റും ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഒത്തൊരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ടി വി ഇൻ്റർനെറ്റ് എന്നു പറയുന്നതല്ല ആരുടെയെല്ലാം കയ്യിൽ സ്മാർട്ട് ഫോണുണ്ടോ അവർക്കെല്ലാവർക്കും ഒരുമിച്ച് ഉപയോഗിക്കാനും അതുപോലെതന്നെ ഒരു ന്യൂസ് നമ്മൾ ഇൻ്റർനെറ്റ് ഇടുകയാണെങ്കിൽ ഒരു വാർത്ത നമ്മൾ ഇൻ്റർനെറ്റിൽ ഇടുകയാണെങ്കിൽ ആ വാർത്ത ലോകത്തിലെ എല്ലാ ഇടത്തേയ്ക്കും സ്പ്രെഡ് ആ പരക്കുന്നു നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നാണെങ്കിലും നമുക്ക് ആ വാർത്ത കേൾക്കാവുന്നാണ് അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റുകൊണ്ട് നമുക്ക് ഉപയോഗപ്രദം ഉള്ളത് അതുപോലെതന്നെ പത്രവും റേഡിയോയും ടി വി അതെല്ലാം നമുക്ക് നല്ല ഉപയോഗപ്രദമാണെങ്കിലും പണ്ടുകാലത്ത് ടി വിയിലെ ദൂരദർശൻ എന്നു പറയുന്ന ആ പഴയകാല പരിപാടികൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് പണ്ടുകാലത്ത് അത് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അന്നാണെങ്കിൽ ഒന്നികിൽ ഒരു പാട്ട് അതൊക്കെ നമുക്ക് ആഴ്ച്ചയിൽ ഒരിക്കലൊക്കെ ആയിരുന്നു ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു സീരിയല് ഒരു സിനിമ അതൊക്കെ മലയാളത്തിൽ അതൊക്കെ ഒരു പ്രാവിശ്യമോ ഒരു മാസത്തിൽ ഒരു ഒരു ദിവസം ആഴ്ച്ചയിലൊരു ദിവസം അങ്ങനെയൊക്കെ ഉള്ളുവായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ലേ ഇന്ന് മലയാളത്തിന് മലയാളത്തിലാണെങ്കിൽ അനേകം വാർത്താ ചാനലുകലും അനേകം രസമായിട്ടുള്ള ചാനലുകളെല്ലാം ഉണ്ട് അപ്പം മലയാളത്തിന് ഇന്ന് നല്ല പ്രാധാന്യമുണ്ട് അപ്പോൾ പണ്ടുകാലത്തെ വാർത്തകളെയൊക്കെ വെച്ചു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദവും അതുപോലെതന്നെ മനുഷ്യനുവേണ്ടി മനുഷ്യന് നല്ല ഉപയോഗപ്രദവും മനുഷ്യനുവേണ്ടി മനുഷ്യൻ ഏതു കാര്യം ചെയ്യുവാനും ആ അത് സഹായകരമാണ് നമുക്കിപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് ഉത്തരം വേണമെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ അടിച്ചു വെക്കുക എങ്കിൽ നമുക്കപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും എന്തിന് നമുക്ക് ഇന്നത്തെ ന്യൂസ് വേണമെങ്കിൽ തന്നെ നമുക്ക് ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കാവുന്നതാണ് അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്നന്ന് നമ്മളിലേക്ക് ഇൻ്റർനെറ്റ് എത്തിക്കുന്നു അത് പണ്ടങ്ങനെ അല്ലായിരുന്നു പണ്ടൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് ദിവസങ്ങൾക്കു ശേഷമോ മാസങ്ങൾക്കു ശേഷമോ മാത്രമാണ് നമുക്ക് കിട്ടിയിരുന്നത് ബട്ട് ഇന്നാണെങ്കിൽ അത് നമുക്ക് ഈ അന്നന്നു തന്നെ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെതന്നെ പണ്ടത്തെക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ മാധ്യമം ഇത് നമ്മൾ ഈ കാലങ്ങൾ ഈ കാലഘട്ടത്തിൽ മാധ്യമത്തിന് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്